ഞാൻ വിളിച്ചതെന്നു വച്ചു കഴിഞ്ഞാൽ എൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യണം ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ എൻ്റെ പഴയ അഡ്രസ് ഉള്ളത് അപ്പം അത് മാറ്റിയിട്ട് ഒന്നിതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ അപ്പം പരിവാഹൻ സേവ ഇല്ലേ അതിൻ്റെ പോർട്ടല് നമുക്ക് കയറിയിട്ട് നമ്മുടെ അഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് അപേക്ഷ അല്ലെങ്കിൽ എന്താണ് പറയുക അപ്ലോഡ് അപ്ലോഡ് ചെയ്തത് മാറ്റി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എങ്ങനെ നമ്മൾ ഇതിൻ്റെ ആധാറിൻ്റെ ഇതാണോ ഓ ലൈസൻസിൻ്റെ ആ ഓക്കെ എന്നിട്ട് വെരിഫൈ ചെയ്താൽ മതിയോ ആ ഇപ്പം ഉള്ള അഡ്രസ്സ് ആ ഇപ്പം ഉള്ള അഡ്രസ്സ് മാറ്റിയിട്ട് ഈ പഴയ അഡ്രസ്സിന് മാറ്റിയിട്ട് പുതിയ അഡ്രസ്സ് വയ്ക്കുക ആ എക്സ്ട്രാ പേയ്മെൻ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല അല്ലേ ഞാൻ ഒന്ന് നോക്കിയിട്ട് വിളിച്ചാൽ മതിയോ നിന്നെ നീ ഓൺലൈനിൽ തന്നെ നിൽക്കുക നീ പോവരുത് കേട്ടോ ഞാൻ ഇപ്പം വിളിക്കാം